ആ മൃഗ സംരക്ഷണത്തിനായിട്ട് നമ്മൾ കൂടുതലായിട്ടും അവർക്ക് തീറ്റ പുല്ല് കാര്യ കാര്യങ്ങളാണ് കൊടുക്കുന്നത് തീറ്റപുല്ലിൽ നമ്മൾ ചോളം അജ് അതായത് നമ്മൾ കർണാടക സ്റ്റേറ്റിൽ നിന്ന് ഇറക്കിയിട്ട് ചോള പുല്ല് കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പുല്ല് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ കൃഷി സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ വെച്ചുപിടിപ്പിക്കുന്ന പുല്ലുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോളം അതായത് ചോളപ്പൊടി അത് നമ്മൾ കൂടുതലായിട്ടും ഇവിടുന്ന് ഇറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയാബീൻ ഭക്ഷണ കാര്യങ്ങളൊക്കെ നമ്മൾ അതായത് പശുക്കൾക്ക് കൊടുക്കാറുണ്ട് ഇപ്പം നല്ല രീതിയിലുള്ള പാലു പാൽ ഉൽപാദനവും കൂടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കുറ്റി പയർ നട്ടുകഴിഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞാൽ അത് ചിലപ്പം നാശമായി പോകാനുള്ള സാധ്യത കൂടുതലാണ് ആ ടൈം കൊണ്ട് നമ്മൾ അത് വെട്ടിയിട്ട് പശുക്കൾക്ക് കൊടുക്കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണക്കപ്പുല്ല് ഉണക്കപുല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വേനൽക്കാലത്ത് കൊടുക്കുന്ന പുല്ലാണ് നമ്മൾ വൈക്കോലാണ് അപ്പോൾ അത് നമ്മൾ വേനൽക്കാലത്ത് കൊടുക്കാറുണ്ട്